വൈകുന്നേരം നാല് മണിക്ക് ഞാൻ കുട്ടികൾക്ക് സമൂസ ഉണ്ടാക്കാമെന്ന് കരുതി സമൂസയ്ക്കുള്ള മസാലകളൊക്കെ ശരിയാക്കി ഉള്ളിയൊക്കെ വെട്ടി അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റ് ചെയ്ത് മസാല റെഡി ആയപ്പോയാണ് പിന്നെ ഓലെ എടുക്കാൻ പോയത് ഓലെടുത്ത് കൊണ്ടുവന്ന് ചുറ്റാൻ നോക്കിയപ്പോള് ഓല ചുറ്റുന്നതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അപ്പോള് ചെയ്യുക എന്നിങ്ങനെ കരുതിയപ്പോഴാണ് രണ്ട് കിഴങ്ങിരിക്കുന്നത് കണ്ടെണ് അപ്പോള് അതെടുത്ത് പുഴുങ്ങി ഈ സമോസേൻ്റെ മസാലയിലേക്ക് അതുംകൂടി ഉടച്ച് കൂട്ടി പിന്നെ മുട്ടയ്ക്ക് മുട്ടയൊക്കെ എടുത്ത് പൊട്ടിച്ച് പിന്നെ ബ്രെഡും റസ്കും പൊടിയൊക്കെ എടുത്ത് ഞാൻ അത് അതിലോട്ടിങ്ങാണ്ട് നല്ലൊരു കട്ലെറ്റ് രൂപത്തിലാക്കി കുട്ടികൾക്ക് ചുട്ടുകൊടുത്തു കുട്ടികൾക്കാണെങ്കിലും സമൂസയിലേറെ ഇഷ്ടപ്പെട്ട കട്ലറ്റാണ് അവർ വളരെ സന്തോഷത്തോടുകൂടി ചായക്ക് സമൂസയും കൂട്ടി ചായ കുടിച്ചു എനിക്കും സന്തോഷമായി കാരണം സമൂസ ഉണ്ടാക്കാൻ കരുതി എന്നത് പിന്നെ ഓല ഇതായതുകൊണ്ട് അത് കട്ലെറ്റിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അങ്ങനെ കട്ലെറ്റൊക്കെ തിന്ന് റാഫിയായി പിന്നോരിസം പത്തിരിയുണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചു പക്ഷേ പത്തിരിപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ലവണ്ണം ഹാർഡായി അതായത് പത്തിരിക്ക് കുഴയ്ക്കാൻ കഴിയുന്നതിനെക്കാൾ നല്ല കട്ടി കൂടിവന്നു അപ്പോള് ഞാനൊരില കൊണ്ടുവന്നു നല്ല പൊടിയണിൻറ്റൊരെല തൊടിയിൽ പോയിയെടുത്ത് പൊട്ടിച്ച് കൊടുന്ന് അതിലേക്ക് കുറച്ച് നാളികേരവും ശർക്കരയൊക്കെ ചേർത്ത് നല്ലൊരു കട്ടിയുള്ള അടയാക്കി കുറച്ച് നെയ്യൊക്കെ അടയില് പൊരട്ടി നെയ്യും വെണ്ണയൊക്കെ പൊരട്ടിങ്ങാണ്ട് അപ്പറിപ്പറോക്കെ നല്ലവണ്ണം ഇലയിൽ വെച്ച് തന്നെ വേവിച്ചു ആ ഇലയുടെ നല്ലൊരു മണം ഒക്കെ കിട്ടും നല്ല ടേസ്റ്റുണ്ടായിരുന്നു അങ്ങനെ പത്തിരി നല്ലൊരു അടയാക്കി മാറ്റി പിന്നെ വേറൊരു ദിവസം ഞാൻ കുട്ടികൾക്ക് മുരിങ്ങ താളിക്കാമെന്ന് കരുതി അങ്ങനെ മുരിങ്ങയൊക്കെയൊടിച്ചു ഇലകളൊക്കെ എടുത്തു കൊണ്ടുവന്നു ഉള്ളിയൊക്കെ വഴറ്റി മുരിങ്ങയിട്ട് കഴിഞ്ഞപ്പോഴാണ് കഞ്ഞിവെള്ളം പിന്നെ ഒഴിച്ച ഓർമ ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞെന്ത് ചെയ്യുമെന്ന് കരുതിയപ്പോളാണ് ഒരു ഗ്ലാസ് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെയെടുത്ത് സതച്ചു എന്നിട്ട് എളുപ്പം ഉപ്പേരിയാക്കി മാറ്റി അങ്ങനെ അവർക്ക് അന്ന് ചോറ് തിന്നാൻ നല്ലൊരു ഉപ്പേരിയാക്കി അത് മാറ്റിക്കൊടുത്തു പിന്നെ ഞാൻ കുട്ടികൾക്ക് നല്ല ചിക്കൻ കറിയുണ്ടായിരുന്നു കുറച്ച് നൂലപ്പം ചുട്ടാലോന്ന് കരുതി അങ്ങനെ നൂലപ്പത്തിന് വെള്ളമൊക്കെ വെച്ചു പൊടി ഞാനതിലേക്കിട്ടു പൊടി ഇട്ടപ്പോഴാണ് നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് ആ പൊടി നല്ല കട്ടിയുള്ളൊരു പൊടിയായി മാറി അപ്പോള് ഞാനതെന്തെടുത്തു ആ പൊടി നല്ലവണ്ണം വാട്ടി കുഴച്ചെടുത്തങ്ങാണ്ട് ചെറിയ ചെറിയ ബോളായി പരത്തി എന്നിട്ടേ കുറച്ച് ശർക്കരയും നാളികേരവും അവിലും ഒക്കെ ചേർത്ത്ങ്ങാണ്ട് പൂവട പോലെയാക്കി മാറ്റി അഫവർക്ക് ആ നൂലപ്പത്തിലാർന്നും നല്ല ടേസ്റ്റും മധുരവുമുള്ളൊരു പൂവടയാക്കി കൊടുത്തു